ചേച്ചി എങ്ങോട്ടാണ് ആ ആ എന്താണ് അവിടെ ആ ബസ്സിൽ പോണതിഷ്ടാ ചേച്ചിക്ക്

ആ ആ ആ എന്താണ് അവിടെ പരിപാടി

പിന്നെ ഛർദിക്കില്ലേ ബസ്സിൽ കയറിയാൽ അതെ ഞാൻ കോഴിക്കോട് പോവുകയാനണ് അവിടെ അവിടെ അനിയത്തിൻ്റെ വീടുണ്ട് അപ്പോൾ അനിയത്തിയെ കാണാൻ പോവാ അനിയത്തിൻ്റെ വീട്ടിൽ അനിയത്തിയും ഭർത്താവും മൂന്ന് കുട്ടികളും ഉണ്ട് കുറേ ദിവസമായി ഓ ആ ഇന്ന് തന്നെ തിരിച്ച് വരും രാത്രി വരും അല്ല ഭർത്താവുണ്ട് ഭർത്താവ് ബാക്കിലുണ്ട്

പിന്നെ എന്താണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ ആ എന്തെങ്കിലും ജോലി ഉണ്ടോ ചേച്ചിക്ക്

എനിക്ക് ജോലി ഒന്നും ഇല്ല ഞാൻ വീട്ടിൽ ഇരിക്കാ പിന്നെ എന്താണ് ഭർത്താവിന് എന്താണ് ജോലി അതെ മക്കളൊക്കെ പണിക്ക് പോകുന്നുണ്ടോ

അതെ ആ ശരി